ട്രക്കിങ്ങിനൂടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളല്ല ഞാൻ കൂടുതൽ യാത്രകൾ പോകാറുള്ളത് പാക്കേജ് ആയിട്ട് മീൻസ് കുറേ ആൾക്കാർ ഒരുമിച്ചു പോകുന്ന ആരുടെയെങ്കിലും നേതൃത്വത്തിൽ പോകുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ പോകാറ് അപ്പോൾ അവിടെ നിന്ന് ഇനി നമുക്ക് ഇപ്പം ഇടേണ്ട ജാക്കറ്റ് അതുപോലെ തന്നെ കയ്യിലൊരു നീളമുള്ളൊരു വടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ നിന്നു തന്നെ അവർ തരാറുണ്ട് സൊ എന്റെ പക്കൽ എനിക്കായിട്ട് അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നുമില്ല പക്ഷെ പോകുന്നവർ ശ്രദ്ധിക്കുക ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പെട്ടെന്നു ശ്വാസം മുട്ടൽ വന്നു വയ്യാതാകുന്ന കുറെ സീറ്റുവേഷൻസ് ഉപകരണങ്ങളേക്കാൾ അവരവരുടെ ഓരോരുത്ത അതായത് ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടിയാൽ അതുപോലെ തന്നെ പക്ഷെ നമ്മൾ പോകുന്നതിനു മുൻപറിയാം നമുക്ക് ഹെൽത്ത് കുറച്ച് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ അറിയാവുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയുള്ള മെഡിസിൻ ആദ്യം കയ്യിലെടുക്കുക അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു